ആ ഞാൻ ആ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണേ കേൾക്കാമോ കേൾക്കാമോ ആ ഞാൻ നിങ്ങളുടെ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഞാൻ ആ കഞ്ഞിക്കുഴിയിൽ നിന്നാണ് കയറുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ ബസ്സിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ച് നിങ്ങളുടെ വണ്ടിയിലെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കാറുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നേ ആ ഓക്കെ അപ്പം നമ്മൾ ഇപ്പോൾ സപ്പോസ് ഒരാൾ പാസഞ്ചർ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരുടെ സ്റ്റോപ്പ് വെച്ചല്ലേ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ക്ലെയിമിൻ്റെ എന്തെങ്കിലും വരുമ്പം ടിക്കറ്റ് എടുക്കാത്തവർക്ക് നമുക്ക് അങ്ങനെ ഇൻഷുറൻസ് കിട്ടുമോ

ആണല്ലേ നമുക്ക് പിന്നെ ആ ഓക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ നമുക്ക് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണോ ചെറിയ പ്രൊസീജർ ആ ഓ ശരി ശരി അപ് ഓക്കെ ഓക്കെ ആ ഞാൻ ഒരു ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുമ്പം ഇങ്ങനെ കുറേ ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടി ടിക്കറ്റ് എടുക്കാത്തവർക്കൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പം അതറിയാൻ വേണ്ടി വിളിച്ചെന്നേയുള്ളൂ

ആ ശരി ഓക്കെ താങ്ക് യു